പഴയ ഗാനങ്ങളാണ് എനിക്ക് കൂടുതലിഷ്ടം കാരണമെന്താ വെച്ചാല് പണ്ടത്തെ പാട്ടുകളെന്ന് പറയുമ്പോൾ ഒരു മെലഡിയാണെങ്കിലും ആ ഒരു ലിറിക്സിലും കാര്യങ്ങളിലും എല്ലാം അർത്ഥം ഉള്ളൊരു പാട്ടുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് ഏതൊരു സിറ്റുവേഷനിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ അതൊരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പാട്ടുകളാണ് അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും പഴയ പാട്ടുകളോട് കൂടുതലിഷ്ടം പിന്നെ നമ്മുടെ മെലഡി സോങ്ങ്സൊക്കെ നമ്മള് പഴയ പാട്ടുകള് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീല് കിട്ടും പക്ഷെ ആ ഒരു ഫീല് പുതിയ പാട്ടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ പഴയ പാട്ടുകളോട് കൂടുതല് ഇഷ്ടം തോന്നുന്നത്